മുൻപൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ റേഡിയോയും പിന്നെ പിന്നെ പത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർ അവരൊക്കെ ന്യൂസ് എത്രമാത്രം ചില പത്രങ്ങളിലൊക്കെ ന്യൂസ് വളരെ അവർ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് പത്രങ്ങളിലൊക്കെ പിന്നെ പണ്ടും അത് എഴുതുന്നത് ഇപ്പോഴും അതെ ഇപ്പം തീരെ മാധ്യമ പ്രവർത്തനത്തിൽ തീരെ സത്യസന്ധത ഇല്ലാത്ത രീതിയിലാണിന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ട് ഇരിക്കുന്നത് പിന്നെ ഈ ടി വി ടി വിയിലൊക്കെ റേഡിയോയിലൊക്കെ ആയി കഴിയുമ്പം കുറച്ചും കൂടെ ഒക്കെ ഒരു സത്യസന്ധമായ രീതിയിൽ അവർ വാർത്ത കൊടുക്കാനായിട്ട് വാർത്ത അവതരിപ്പിക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ഒരു പിന്നെ കാര്യമാണ് വലിയ ഒരു പിന്നെ ഇങ്ങനെ നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്കാണ് അത് ഇന്ന് നടക്കുന്നത് കാരണം അവർ അവരുടെ അവിടെ പിന്നെ വിചാ ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഏത് രീതിയിൽ ഈ ചാനലുകൾ വാർത്തകൾ കൊണ്ടുപോവണമെന്ന് വാർത്ത എങ്ങനെ അവതരിപ്പിക്കപ്പെടണമെന്നും ഒക്കെ അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതനുസരിച്ചേ പിന്നെ വാർത്തകൾ നടക്കൂ അതിപ്പം പിന്നെ ഇപ്പോൾ ടി വി എടുക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നെ ചാനലുകളുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെക്കൂടെ ദൂരദർശൻ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നു ആ ദൂരദർശൻ ചാനൽ കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരര മണിക്കൂർ അത്രയും നേരമൊക്കെയേ ഉള്ളൂ വാർത്തകൾ വായിക്കപ്പെടും ആ അത്രയും സമയങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെയും ലോകത്തിലെമ്പാടിലെയും പിന്നെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നിപ്പം പിന്നെ വിപ്ലവകരമായ പിന്നെ സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിൽ പിന്നെ ടി വി തുറക്കുമ്പോൾ ഇന്ന് ഒരുപാട് സ്വകാര്യ ചാനലുകൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതിൽ തന്നെ വാർത്താ ചാനലുകളുണ്ട് എൻ്റർടെയിൻമെൻറ് ചാനലുകളുമുണ്ട് വാർത്താ ചാനലുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നെ വാർത്താ അവതരണം നടത്തുന്നത് അവർക്ക് അത് തോന്നുന്ന രീതിയിലൊക്കെ ആണവിടെ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ വാർത്താ അവതരണം വളരെ പിന്നെ അവർക്ക് തോന്നുന്ന രീതിയിലതായത് ചർച്ചകളൊക്കെ ആണെങ്കിൽ അവർ അവർ വിചാരിച്ചിട്ടുണ്ട് അതേത് രീതിയിൽ അവസാനം അവർ അവസാനിപ്പിക്കണം ആ രീതിയിലാണ് അവർ പിന്നെ ആ ചാനലുകൾ വാർത്ത അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അത്യു പിന്നെ അത്യന്താധുനിക ഒരു വിപ്ലവകരമായ സാങ്കേതിക വിദ്യയുടെ മാറ്റം എന്നാണ് മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിലെ യൂട്യൂബിൽ യൂട്യൂബ് എന്ന പിന്നെ ആപ്ലിക്കേഷനിൽ പിന്നെ ഒരുപാട് പിന്നെ എന്താണ് ഒരുപാട് ബ് വാർത്താ ചാനലുകളും എൻറർടെയിൻമെൻറ് ചാനലുകളുമായിട്ട് ഇഷ്ടംപോലെ അതുവഴിയായിട്ടൊക്കെ ധാരാളം ന്യൂസ് നമ്മൾ കാണുന്നു ആ ന്യൂസ് ഒക്കെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ആ ന്യൂസുകൾ ഒരു ഒരു വാ ഒരു വാർത്ത തന്നെ ഒരു വിഷയം തന്നെ ആയിരിക്കും ആ വിഷയം തന്നെ ഓരോ ചാനലുകളും അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ അതിനെ അവതരിപ്പിക്കുകയും അങ്ങനെ പിന്നെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒക്കെ അവതരണം നടത്തുന്നത് സമയം ഇത് പിന്നെ ഈ ശ്രോതാക്കളുടെ ഇടയ്ക്ക് വലിയ ഒരു പിന്നെ അവർക്ക് അതൊരു പിന്നെ അവർക്ക് തന്നെ ഒരു ഓരോ വാർത്തയെ കുറിച്ചും അവർക്ക് തന്നെ സംശയം തോന്നും അവർക്ക് തന്നെ ഒരു കൺഫൂഷ്യൻ ഉണ്ടാവും ആശയക്കുഴപ്പം ഉണ്ടാവും ആ അപ്പം ഇതെന്താണ് വാർത്ത ശരിക്കുമുള്ള വാർത്ത എന്താണ് എന്താണ് ഈ ലോകത്ത് അതിനെകുറിച്ച് സംബന്ധിച്ച് സംബന്ധിച്ച് നടന്നത് അപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഒരു സംശയമായിട്ട് തീരുന്നു പക്ഷേ അങ്ങനെയൊക്കെ നോക്കുകയാണ് എങ്കിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് റേഡിയോയിലൂടെ കേട്ട വാർത്ത തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള അതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനുറ്റോ കൊണ്ട് അവർ ഈ ലോകത്ത് നടന്നതും ഈ ലോകത്തെമ്പാടും ഇപ്പോൾ കേരളം ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ലോകത്ത് മറ്റ് വിവിധ രാഷ്ട്രങ്ങളിലായിക്കോട്ടെ എവിടെ എന്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായിട്ട് അവർ പിന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലവർ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് തരുന്നു അപ്പം ഈ പിന്നെ റേഡിയോയിലുള്ള വാർത്തകളാണ് കൂടുതൽ സത്യസന്ധമാണെന്ന് പിന്നെ ആണ് എൻ്റെ അഭിപ്രായം കാരണം പിന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇയർഫോണിലുള്ള വിവിധങ്ങളായ വാർത്താ ചാനലുകളിലെ ഈ ന്യൂസുകൾ പിന്നെ സ്വകാര്യ ടി വിയിൽ സ്വകാര്യ ചാനലുകളിലും ഉള്ള വാർത്തകളൊക്കെ പരിശോധിക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരവർക്ക് പിന്നെ തോന്നുന്ന രീതിയിലാണ് ആ ന് വാർത്തകൾ പടച്ച് വിട്ടിരിക്കുന്നത് എന്നിട്ട് അതവർക്ക് പിന്നെ ഒരു വാർത്ത തന്നെ ആയിരിക്കും ഒരു വിഷയം തന്നെ ആയിരിക്കണം അത് ഓരോ ചാനലുകളും അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ അത് അവതരിപ്പിക്കുന്നു അവർ ചർച്ചകൾ നടത്തുന്നു അവതാരകർ അവർ വിചാരിക്കുന്നുണ്ട് ഓരോ അത് ഏത് രീതിയിൽ അത് അവസാനിപ്പിക്കണം എന്ന് അങ്ങനെയാണവർ ഇത് ചെയ്യുന്നത്